ഹലോ ഞാന് ഇവിടെ ആർമിയില് വർക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പം എൻ്റെ പെൻഷൻ എല്ലാം കൂടെ എൻ്റെ വേറൊരു അതായത് എൻ്റെ ഭാര്യയുടെ പേരിലോട്ട് ആക്കാനായിരുന്നു അപ്പം അതിൻ്റെ ഫോർമാലിറ്റീസ് എന്തൊക്കെയാന്ന് പറയാവോ ഓ ഞാനിപ്പം നാട്ടിലില്ലായിരുന്നു അപ്പം എനിക്കിത് ഓൺലൈൻ വഴി ചെയ്യാനായിരുന്നു അതാ ഞാൻ നിങ്ങളെ വിളിച്ചത് അപ്പം ഇതിനെന്തൊക്കെ ഇതൊക്കെ വേണമെന്ന് പറഞ്ഞാൽ നാളെ ഞാനിപ്പം എൻ്റെ വൈഫിനെ ഇവിടെ അപ്പം വൈഫിൻ്റെ പേരിലോട്ട് നോമിനിയാക്കാനാണ് ഞാൻ അപ്പം വിളിച്ചത് അപ്പം എൻ്റെ അവസാനത്തെ അവസാനത്തെ പാൻ നമ്പർ എന്ന് പറഞ്ഞാൽ അറുപത്തേഴ് തൊണ്ണൂറ്റെട്ടാണ് അതുപോൽ തന്നെ എനിക്കിപ്പം അങ്ങോട്ട് നേരിട്ട് വരാൻ പറ്റില്ല എനിക്കിപ്പം ലീവില്ല അതുകൊണ്ട് ഇപ്പം എത്ര ദിവസം സമയമെടുക്കും ഈ പ്രോസസ്സിംഗ് എല്ലാം കൂടെ ആയിക്കിട്ടാൻ അതായത് എൻ്റെ നോമിനി ആക്കണം എൻ്റെ വൈഫിനെ എനിക്ക് നോമിനി ആക്കി അതിന് എന്തോരം സമയം എടുക്കും പിന്നെ അപ്പം എൻ്റെ പേരിലെ കിടക്കുന്നതിൻ്റെ എനിക്ക് നോമിനിയും കൂടെ ആക്കാനായിരുന്നു ആ അപ്പം നാളെ എൻ്റെ വൈഫ് ഒരു പത്ത് മണിയാകുമ്പോൾ നിങ്ങളുടെ ഓഫീസിൽ എത്തും അപ്പം അത് എന്തൊക്കെയാണ് വേണ്ടിയത് എന്നൊന്ന് പറഞ്ഞാൽ ഞാൻ നാളെ അവളോടും അത് പറഞ്ഞിട്ട് കൊടുത്ത് വിടായിരുന്നു